ഇരുപത് രണ്ട് രണ്ടായിരത്തി എട്ട് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഒമ്പത് പതിനാല് മൂന്ന് രണ്ടായിരത്തിപ്പത്തൊമ്പത് പതിനാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പതിനാല് രണ്ട് രണ്ടായിരത്തിപ്പതിനെട്ട് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തിപ്പതിനാറ്